എന്നെ വളരെയധികം പ്രചോദിപ്പിച്ച പ്രതികരണങ്ങൾ എന്തെന്നാൽ എൻ്റെ എഴുത്തുകളെ മറ്റ് ആരെക്കാളും കൂടുതൽ പ്രചോദിപ്പിച്ചത് പ്രചോദിപ്പിക്കുന്നത് എൻ്റെ വീട്ടുകാർ തം തന്നെയാണ് അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആയിരുന്നാലും എന്ത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായിരുന്നാലും എഴുതിയാൽ തന്നെ അവർ അത് വായിച്ച് അതിനെക്കുറിച്ച് പറയുകയും തെറ്റുകളുണ്ടെങ്കിൽ തെറ്റുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ അവർ എന്നോട് പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എന്നോട് പിൻ എന്നോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നാലും എൻ്റെ എഴുത്തുകളെക്കുറിച്ച് അവർ നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറയാറ് എന്തെങ്കിലും സംശയങ്ങളോ അതേപോലെ തന്നെ എൻ്റെ കഴിവിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ആയാലും അതെനിക്ക് അത്രയും അറിയാവുന്ന എന്നോട് അത്രയും അറിയാവുന്ന അവരോട് ചോദിച്ച് സംശയങ്ങൾ ഒക്കെ ഞാൻ തീർക്കാറുമുണ്ട്